പണ്ട് എടുത്ത ഫോട്ടോകളും ഇപ്പോൾ എടുത്ത ഫോട്ടോകളും ഒക്കെ കൈയിലുണ്ട് പക്ഷേ പണ്ടെടുത്ത ഫോട്ടോകൾ പറയുമ്പോൾ അത് ഒരുപാട് വ്യക്തതയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞതും ഒരുപാട് സന്തോഷം നിറഞ്ഞതും ആയിരിക്കും പണ്ട് എടുത്ത ഫോട്ടോകൾ പണ്ട് ഫോട്ടോകൾ എടുക്കാൻ തന്നെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടണം എല്ലാവരുടെ കയ്യിലും ക്യാമറയും ഒരു ടേപ്പ് റെക്കോർഡർ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അങ്ങനെ ടേപ്പ് റിക്കോർഡർ അങ്ങനെ ഒന്നും ഇല്ല ഇല്ലാത്തൊരു കാലത്ത് ഫോട്ടോയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് ഒരു വീട്ടിൽ ഒരു ഒരു പരിപാടി നടക്കുക എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുമ്പോൾ ആ നേരത്ത് ഫോട്ടോ എടുക്കാൻ നേരത്ത് എല്ലാ കുടുംബാംഗങ്ങളും ഒത്തു ചേർന്ന് ഒരുമിച്ച് നിൽക്കും ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും അന്ന് ഫോട്ടോ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു കൗതുകം തന്നെയാണ് അതുപോലെ ഇപ്പോഴാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിൽ ഫോട്ടോ എടുക്കാം എപ്പോൾ വേണമെങ്കിലും ഏങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ അന്നത്തെ കാലത്ത് ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്ത് എല്ലാവർക്കും കൂടെ ഒരു പത്തു നാൽപ്പത് കുടുംബാംഗങ്ങൾക്ക് കൂടി ഒരു ക്യാമറ ആയിരുന്നു ആ ഒരു ഒറ്റ ക്യാമറയിൽ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കുക അത് എന്നിട്ട് അതിൻ്റെ കടയിൽ ചെന്ന് കൊടുത്ത് അത് പ്രിൻറ്റ് ചെയ്തെടുക്കുക അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെ ആയിരുന്നു അത് പിന്നെ പിന്നെ എന്താണ് പറയുക പഴയ ഫോട്ടോകളെ കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ പഴയ ഫോട്ടോകൾ പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഒക്കെ നിറഞ്ഞതാണ് ഒരുപാട് വ്യക്തതയില്ലെങ്കിലും എന്നാൽ കൂടി ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞതാണ് പഴയ ഫോട്ടോകൾ പഴയ ഫോട്ടോകൾക്ക് വൈകാരികമായ മൂല്യം എന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ പഴയ ഫോട്ടോകൾ കാണുമ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയുമായിരിക്കും ചിലപ്പോൾ ഇത് എന്താണ് ക്ലിയർ ഇല്ലല്ലോ ഒരു വ്യക്തത ഇല്ലല്ലോ ഒക്കെ ഒരു മഞ്ഞുമൂടിയത് പോലെയാണല്ലോ ഫോട്ടോകളൊക്കെ പക്ഷെ അതുപോലെ ഒന്നുമല്ല അതൊക്കെ അന്നത്തെ ഒരു സന്തോഷമായിരുന്നു ഈ ഫോട്ടോ എടുക്കുന്നതും അയക്കുന്നതും ഒക്കെ അന്നത്തെ ഒരു സന്തോഷമായിരുന്നു ആകെ ഒരേ ഒരു യന്ത്രമുള്ളൊരു വീട്ടിൽ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കരം ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓർമ്മകൾ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ തന്നെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമാണ് എന്നെ പോലെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടാവുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ എപ്പോഴും ഇഷ്ടമാണ് ഇപ്പോൾ മൊബൈലിൽ ഫോട്ടോ എടുത്താൽ തന്നെ നമ്മൾ അതിൽ വേറൊരു ഇതിലാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നതും ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്